ഹലോ സ്വിഗ്ഗിയുടെ കസ്റ്റമർ കെയറല്ലേ ഒരു രണ്ടേകാലായപ്പോൾ ഒരു ബിരിയാണി ഓഡർ ചെയ്തിരുന്നു ബിരിയാണിക്കൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ നിങ്ങളുടെ ഓഫർ കണ്ടിട്ട് ഓഡർ ചെയ്തതാണ് പഷെ എന്തോ ഫുഡ്ഡിനൊരു പ്രശ്നങ്ങൾ ഇതിനെന്താപ്പം തീരുമനമുണ്ടാക്കാനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതുപോലത്തെയുള്ള ഫീഡ് ബാക്ക് പലതവണ ഞാൻ കേട്ടിണ് എൻ്റെ അയൽവാസിക്കും ഇതേപോലക്കത്തെ ഫുഡ്ഡിന് കമ്പ്ലെയ്ൻ്റൊക്കെ സ്വിഗ്ഗിയിൽ നിന്ന് പറഞ്ഞ്ണ് അപ്പോൾ ഇനി ഇതേപോലെയുണ്ടായാൽ ഫുഡ്ഡ് ഇൻസ്പെക്ടർക്ക് കമ്പ്ലെയ്ൻ്റ് കൊടുക്കും നിങ്ങളിത് നിങ്ങളുടെ മാനേജറിനൊന്ന് കൊട്ത്താണി നിങ്ങളിത് ഏത് ഹോട്ടലിൽ നിന്നാണ് ഓഡർ എടുത്തത് അതൊന്നു പറയാമോ ഇത്ര പൈസ കുറവ് കണ്ടപ്പോൾ ഓഡർ ചെയ്യുമ്പം നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഫുഡ്ഡൊക്കെ ഓഡർ ചെയ്യണേ അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു നിലവാരം കാത്തുസൂക്ഷിക്കണ്ടെ എത്ര ഇപ്പം എത്രാമത്തെപ്രാവശ്യമാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഓരോരുത്തരായി കമ്പ്ലെയ്ൻ്റ് ചെയ്യുന്നത് ഇനി എന്താ ചെയ്യാൻ പറ്റുക ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിവരുമോ അല്ലെങ്കിൽ ഞാൻ ഫുഡ്ഡ് ഇൻസ്പ്പക്റ്റർക്ക് കേസു കൊടുക്കും എന്തായാലും കേസു കൊടുക്കും